ആ വാ മേഡം വാ മേഡം സുഖം തന്നേ കുറേ നാളായല്ലൊ കണ്ടിട്ട് എന്ത് വേണം കഴിക്കാൻ കഴിക്കാൻ സമൂസയുണ്ട് വടകളുണ്ട് വട എന്ന് വെച്ചാൽ പരിപ്പ് വട ഉഴുന്ന് വട ബജിയുണ്ട് പിന്നെ വാഴയ്ക്കാപ്പം പിന്നെ ദാണ്ട് പുതിയ ഐറ്റംസൊക്കെ കണ്ടില്ലേ നമ്മളുടെ കട്ട്ലറ്റ് പപ്പ്സ് പപ്പ്സ് തന്നെ നാല് വിധമാണ് മുട്ട പപ്പ്സുണ്ട് വെജിറ്റെബിൾ പപ്പ്സ് ചിക്കെൻ പപ്പ്സ് സ്വീറ്റ് പപ്പ്സുണ്ട് മീറ്റ് റോൾ ഉണ്ട് വെജിറ്റെബിൾ റോൾ ഏതുവേണം കഴിക്കാൻ കഴിക്കാനാണോ പാർസലാണോ ആ ഒരു ചായ എടുക്കട്ടെ ചായ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ചായയുടെ പുതിയ പയ്യന്മാരാണ് ഇപ്പം നിൽക്കുന്നത് പഴയ ആളുകളൊന്നും അല്ല ഇപ്പം ഭയങ്കര സെറ്റപ്പ് ആക്കിയിവിട ചായയില് തന്നെ നാലഞ്ച് ഐറ്റംസ് ഉണ്ട് മസാല ചായയുണ്ട് ക്യാരറ്റ് ചായ ബീറ്റ്റൂട്ട് ചായ എടുക്കട്ടെ ഏത് ചായ എടുക്കണം ആ ആ ആ കൊള്ളാമോന്ന് നോക്ക് മാഡം കഴിക്കാൻ എന്ത് വേണം ഇപ്പം കഴിക്കാൻ ആ ആ ദാ ഇപ്പം പഴയ ആളുകളൊക്കെ ഇവിടെ നിന്ന് പോയി ഇപ്പം എല്ലാവരും പുതിയ ആളുകളാണ് എല്ലാവരും എല്ലാവരും നല്ല കട്ടക്ക് ജോലിയൊക്കെ ചെയ്യുന്ന നല്ല ഫുഡ്ഡൊക്കെ ഉണ്ടാക്കുന്നവരാണ് പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ അല്ലെങ്കിലും നല്ലോര് നല്ല കസ്റ്റമർ ആണിവിടെ വരുന്നവരൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരുണ്ട് അല്ലാതെ ജോലിക്ക് പോയിട്ട് പിന്നെ ഇവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നവരുണ്ട് അപ്പം നമ്മള് നല്ല കസ്റ്റമർ ആയത്കൊണ്ടൊരു നല്ല സാധനങ്ങളും കൊടുക്കണമല്ലോ അതുകൊണ്ട് നമ്മള് എല്ലാം പഴയ പടി എല്ലാം മാറ്റി പുതിയ ആളുകളാണ് എല്ലാം നിൽക്കുന്നതും ഫുഡ്ഡ് നമ്മളതിനൊക്കെ അതിന് ഡെവലപ്പ് ചെയ്ത് ഇപ്പം ഷവർമ്മയുണ്ട് ശവായി ഉണ്ട് എല്ലാം ഉണ്ട് ഇടയ്ക്കൊക്കെ ഇറങ്ങണം കെട്ടോ ഓ ഏതാണ് മാഡം ആ ആ ആ ചിക്കൻ പപ്പ്സുണ്ട് നമ്മള് ഫാമിലുണ്ടാക്കുന്ന ചിക്കനാണ് നമ്മളുടെ ഫാമിൽ തന്നെയുള്ള ചിക്കനാണ് നമ്മള് എല്ലാം ചെയ്യണത് ചിക്കെൻ പപ്പ്സ് വേണോ എടുക്കട്ടെ ആ ആ അപ്പം ഒരു മൂന്ന് ചിക്കൻ പപ്പ്സും രണ്ട് എഗ്ഗ് പപ്പ്സും എടുക്കാം ശരി എന്നാൽ ഇതാ മേഡം തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഓ ഗൂഗിൾ പേ ആണോ അതോ ആ ആ ആ ശരി ശരി ആ അപ്പോൾ ഇതാണ് ഗൂഗിൾ പേ നമ്പർ ഈ നമ്പരിലോട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി ശരി മേഡം എന്നാൽ കാണാം ആ ഓക്കെ